ആ ചേച്ചി ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് സീ ഫുഡൊക്കെ എന്താണ് ഞാൻ ഇവിടുത്തെ പുതിയതാണ്

ആ ഞാനിവിടെ കുറച്ച് ടൂറിസ്റ്റാണേ അപ്പോൾ ഞാനിവിടെ ഇവിടെയല്ല ഞാനങ്ങ് മൂന്നാറിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ആ അപ്പോൾ ഇവിടുത്തെ സീ ഫുഡൊക്കെ ഭയങ്കര ഫേയ്മസാണെന്നാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഓരോ ഡിഷും നമുക്ക് ട്രൈ ചെയ്യാം പറഞ്ഞിട്ട് ആ അപ്പൊ ഞങ്ങള് ഫാമിലിയായിട്ട് വന്നതാണ് അപ്പൊ ഏകദേശം ആ എല്ലാ സീ ഫുഡും നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പൊ അതാണ് വെറൈറ്റീസ് അപ്പൊ ഏതൊക്കെയാ ഉള്ളതെന്നൊക്കെ ചോദിച്ചേ ഇവിടെങ്ങനെയാ മറ്റേ ചൈനീസ് വെറൈറ്റീസൊക്കെയുണ്ടോ ആ ആ ആ ആ ആ പ്രോണിൻ്റെ എന്തൊക്കെ വൈറൈറ്റീസാ ഉള്ളത് ആ ആ ആ ആ ഈ ഞങ്ങൾക്കിപ്പോ ഇവിടെ ഇവിടെ വന്ന് കഴിക്കാനാണ് ഞങ്ങളപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ സ്ഥലത്ത് അപ്പൊ ഇവടെയൊക്കെ ചുറ്റും ഒക്കെ നമുക്കൊന്ന് സ്ഥലമൊക്കെ ചുറ്റിക്കണ്ട് അപ്പൊ നമുക്കൊന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പൊ ഇവിടത്തെ കുറച്ചു പെരുകേട്ട റെസ്റ്റോറന്റ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് കുറച്ചും കൂടി നല്ല സീ ഫുഡൊക്കെ ഇവിടെയാണ് കിട്ടുക പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ മറ്റേ ചേച്ചീ കരിമീൻ കൊണ്ടുള്ള ഡിഷൊക്കെ എന്തൊക്കെയാ കരിമീൻ വെറൈറ്റീസൊക്കെ ആ ആ

ആ ഇവിടുത്തെ ഈ ആ ഈ റെസ്റ്റോറന്റിൽ മെയ്നായിട്ടുള്ള അല്ലെങ്കിൽ മെയ്നായിട്ടുള്ള ഡിഷേതാ സീ ഫുഡിൽ തന്നെ മെയിൻ ഡിഷ് ആ ആ അത് ഭയങ്കര സ്പെഷ്യലാണോ ആ അതെ ആ ആ ആ അതെങ്ങനെ ഇപ്പോ സ്പെഷ്യലെന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം ഇതിലിപ്പോ ഉണ്ടാക്കുന്നതില് ആ ഓ ഓ ആ

ആ ആ അപ്പൊ ചേച്ചി ഇപ്പൊ എന്തായാലും ഇവിടുത്തെ എല്ലാ ഏകദേശം എല്ലാ സീ ഫുഡും നമുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഫാമിലിയായിട്ടാ വന്നത് ആ ആ അപ്പൊ ചേച്ചിയെന്തായാലും എല്ലാമൊന്നെടുത്ത് ആ വെച്ചാൽ അപ്പൊ ചേച്ചി ഇവിടെ ഒരാളാണോ വർക്ക് ചെയ്യണത് അതോ കുറേ പേരുണ്ടോ അ ആ ആ അ ആ

അ ആ ആ അപ്പൊ ചേച്ചി അപ്പൊ ആ അപ്പൊ എന്തായാലും എല്ലാമൊന്ന് എല്ലാ വെറൈറ്റീസും നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പൊ എന്തായാലും ആ അ ആ

ഓക്കേ ആ ആ ആ ആ അപ്പോ ശരി ചേച്ചി